ഇന്ത്യയിൽ ഏറ്റവും ജനപ്രിയ കായിക വിനോദങ്ങൾ ഞങ്ങൾക്കേറ്റവും ഇഷ്ടം ഫുട്ബോള് വോളിബോള് ക്രിക്കറ്റൊക്കെയാണ് പിന്നെ ഇതിനകത്തേറ്റവും നല്ല പ്ലെയേഴ്സിനെ പറയുകയാണെങ്കിൽ ഫുട്ബോളിലാണെങ്കിൽ ഞങ്ങൾക്ക് ലയണല് മെസ്സി ക്രിസ്റ്റ്യാനോ റൊണാള്ഡോ അതുപോലെതന്നെ ഞങ്ങളുടെ ഇന്ത്യയ്ക്ക് വേണ്ടിയാണെങ്കിൽ നമ്മുടെ സുനിൽ ഛേത്രിയിനെയൊക്കെ ഒരുപാട് ഇഷ്ടമാണ് അതിപ്പോൾ ഐ എസ് എല്ലിലാണെങ്കിലും നമ്മുടെ തന്നെ കുറേ കേരത്തിലുള്ള വ്യക്തികളുണ്ട് കളികളെല്ലാം കാണും ക്രിക്കറ്റിനോടൊക്കെ ഒത്തിരി ഇഷ്ടമാണ് ഐ പി എല്ലിലാണെങ്കിലും മുംബൈ ഇന്ത്യൻസ് ഇപ്പോൾ ഈ ഫുട്ബോളിന്റെ കേസിലാണെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് അതുപോലെതന്നെ ബാർസലോണ എല്ലാം ഇഷ്ടമാണ് കളികളൊക്കെ കാണാൻ ഒത്തിരി ഇഷ്ടമാണ് അതുപോലെതന്നെ വോളീബോളും ഇഷ്ടമായിരുന്നു ജിമ്മി ജോർജിൻ്റെ വീഡിയോയൊക്കെയിരുന്ന് ഇടയ്ക്ക് കാണും അതൊക്കെ ഞങ്ങൾക്കൊരുപാട് എന്തൊക്കെയാണ് വിനോദങ്ങൾ തരുന്നൊരു കാര്യം തന്നെയാണ് പിന്നേ മെസ്സിയിനെയൊക്കെ സംബന്ധിച്ചെടുത്തോളം അടിപൊളി പ്ലെയറാണ് ഫിഫയിൽ ആണെങ്കിൽ കപ്പും അടിച്ചു റൊണാൾഡോ ആണെങ്കിൽ ഒരുപാട് ഗോളും ഇട്ടു നെയ്മറും അതുപോലെതന്നെ ഇവർ മൂന്നു പേരുമാണ് ഞങ്ങൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുട്ബോൾ താരങ്ങൾ ക്രിക്കറ്റിൽ പിന്നെ ഞങ്ങൾക്കൊരാളെ ഉള്ളു മെയിനായിട്ട് ഞങ്ങളുടെ തല എം എസ് ധോണിയാണ് പിന്നേ വോളീബോളിലാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ജിമ്മി ജോര്ജ് ജിമ്മി ജോര്ജിൻ്റെയൊക്കെ കളി കണ്ടുകൊണ്ടിരുന്നതായിരുന്നു പുള്ളിയിപ്പോൾ ഇല്ല ഒരുപാട് വിനോദങ്ങള് തന്നിട്ടുള്ളതാണ് നമ്മളൊക്കെ ഇവരുടെ കളി കണ്ടുതന്നെയാണല്ലോ കളിക്കുകയും മുന്നോട്ടേക്ക് പോവുകയും ചെയ്യുന്നത് കായിക വിനോദങ്ങളൊക്കെ ഒത്തിരി ഇഷ്ടമാണ് അത് ഇന്ത്യയിലെയൊക്കെ ഒരുപാട് ഇഷ്ടമാണ് ഇന്ത്യയൊക്കെ ജയിക്കണം എന്നു തന്നെയാണ് ആഗ്രഹം ഉള്ളു എല്ലാത്തിലും